മ്മ് ഹലോ ആ ഹോട്ടലല്ലേ ആ ഞാൻ ഉദയഗിരി ഉദയഗിരിയിൽ നിന്നാണ് വിളിക്കുന്നത് ഉദയഗിരി ഇത് കട്ടപ്പന അല്ലെ കട്ടപ്പന അല്ലെ ആ ഹ ഹാ ആ ഞാൻ വിളിച്ചതേ നിങ്ങൾക്ക് ഇങ്ങനെ ഹോം ഡെലിവറി ഉണ്ടോ ആ ഓക്കെ ഉച്ചഭക്ഷണം ഉച്ചക്ക് എന്തൊ എന്തൊക്കെയാണ് ഐറ്റംസ് ഉച്ചഭക്ഷണത്തിനായിട്ട് ഉം ഉം ഉം ഉം ഉം കുഴിമന്തി ഉണ്ടോ കുഴിമന്തി

ആ ആ ഈ അൽഫാം ഒക്കെ റേറ്റ് എങ്ങനെയാണ് ഉം ഞാൻ ഇപ്പം ഒരു ആറ് പേരുള്ള ഒരു ഫാമിലിക്ക് കഴിക്കാനായിട്ട്

ഓ ഓ ഓ ആയിരത്തി എഴുന്നൂറ് ആകുമല്ലെ ആ ആ ആ ആ ആ അപ്പം അത് നമുക്ക് ഈ ആറ് പേർക്ക് ഒരുന്നേരം കഴിക്കാനുള്ളതുണ്ട് സാധനം മ്മ് മ്മ് ഉം ഉം ഉം മ്മ് മ്മ് മ്മ് ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം ആ ഹാ ഹാ ആ ആ ആ നമുക്ക് ഇത് ഇപ്പം ഇനി

ഓ ഓ ആ ആ ഹാ ആ ആ ആ ഈ പറഞ്ഞ റേറ്റിൽ ഹോം ഡെലിവറിക്ക് ആയി പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഈ ഇതുകൊണ്ട് എല്ലാം തീരും അതോ ഉദയഗിരിയാണ് ആ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കുഴപ്പം ഇല്ലല്ലൊ

ഉം ഉം ഉം ആ ഓക്കെ ഓക്കെ നമുക്ക് ഒരു ഒരു ഒരു ഇപ്പം സമയം പതിനൊന്നര ആയില്ലേ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമോ

പന്ത്രണ്ട് നാൽപത്തഞ്ച് ആ ആ ആ ആ അതിന് അപ്പുറത്തേക്ക് പോകില്ലല്ലൊ അതിന് അപ്പുറത്തേക്ക് പോകില്ലല്ലൊ ആ ആ ആ ഉദയഗിരിയിൽ നിന്ന് ഉദയഗിരിയിൽ നിന്ന് ഒരു ഒര് കിലോമീറ്റർ താഴേക്ക് പോകണം അതായത് മേലെ പള്ളി റോട്ടിൽ ആ ആ ഉദയഗിരി വരാതെ നിങ്ങൾക്ക് ചെമ്പകപാറ ഡെലിവറി ഇല്ലേ ചെമ്പകപാറയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉദയഗിരി വരാതെ വരാം ഉദയഗിരി വരാതെ വരാം ഉദയഗിരി ഞാൻ വേണേൽ ലൊക്കേഷൻ അയച്ച് തരാം എന്നാ പിന്നേ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാകുമല്ലൊ അപ്പം എന്നാൽ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിന് അപ്പുറത്ത് പോകാതെ എത്തിക്കണേ സാധാരണ ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ ക്യാഷ് വരുമ്പം കൊടുത്തു വിട്ടാൽ പോരെ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ അപ്പം അപ്പോൾ എന്നാ ഒരു പന്ത്രണ്ടേ മുക്കാലിന് അപ്പുറം പോകാതെ എത്തിക്ക് ഓക്കേ ഓക്കേ ഓ ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ശരി